എന്റെ പ്രിയങ്കരനായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ കഥകൾ അതിനു മിക്കവാറും എല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ബാല്യകാലസഖി പിന്നെ പാത്തുമ്മയുടെ ആട് പിന്നെ മതിലുകൾ അങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട രചനകളെല്ലാം തന്നെ ഞാന് വായിച്ചിട്ടുണ്ട് എല്ലാ രചനകളിലും അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളും സ്നേഹം പ്രേമം ഒക്കെ അതിന്റെയൊക്കെ നല്ല മൂര്ത്തീ നല്ല നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സാധാരണക്കാര്ക്ക് എഴുതാന് പറ്റുന്ന വായിക്കാന് പറ്റുന്ന സാധാരണ രീതിയിലുള്ള ലിപികളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഭാഷ കൂടുതലും കോഴിക്കോടന് സ്റ്റൈലിലുള്ള ഒരു ഭാഷയിലാണ് രചനകൾ എല്ലാം തന്നെ പാത്തുമ്മയുടെ ആട് എന്നു പറയുമ്പോൾ ഒരു കുടുംബ ബന്ധങ്ങളെ കുടുംബത്തിനെ കേന്ദ്രീകരിച്ച് ഒക്കെ ഒള്ള ആണ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അതിൽ ആധികാരികമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട് പിന്നെ മതിലുകൾ മതിലുകൾ ഒക്കെ മതിലുകൾ ഒരു സിനിമയായിട്ടുണ്ട് അത് ഹൃദ്യവും ലളിതവുമായ ഒരു നോവലാണ് അത് വായിക്കാൻ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും പല പ്രാവശ്യം വായിച്ചാലും വായിച്ചാലും നമുക്ക് മതിയാവത്തില്ല ഒത്തിരി ലളിതമായ ഒരു ഭാഷയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷ വളരെ ഹൃദ്യമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ ആസ്വാദ്യമാണ് സ്നേഹത്തിന്റെ ഒരു ഭാവം അവിടെ നൽകിയിരിക്കുന്നത് പ്രകൃതി ഭംഗിയും സ്നേഹത്തിന്റെ ഭാവവും എല്ലാം ഒന്ന് ഒരു ഒരു മതിലുകള്ക്ക് അപ്പുറമുള്ള ഒരു ജയിൽവാസത്തെ കുറിച്ചുള്ള തന്റെ സങ്കല്പ്പങ്ങളും അവിടെ വിരിയുന്ന ഒരു പ്രേമത്തിന്റെ ഒരു ഒരു സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഒരു ലാസ്യഭാവങ്ങൾ അവിടെ പ്രതിധ്വനിച്ച് കാണുന്നുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ എല്ലാ രചനകളും സ്നേഹത്തെ അദ്ദേഹം സ്നേഹത്തിന്റെ ഭാഷയിലാണ് രചനകളെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത്